ആ ഇത് ആരായ്നു ആ എന്തായിരുന്നു മിസ് പ്രോബ്ലം ആ ആ ക്ലാസ്സിന് വേറെ ടീച്ചേഴ്സ് ഒക്കെ ഇത്ര പരാതി പറയുന്നുണ്ടോ ബാക്കിയുള്ള ടീച്ചേഴ്സിന് ക്ലാസ്സിലൊക്കെ അവർ എങ്ങനെയാണെന്ന് നോക്കിയിരുന്നോ ആ അപ്പോൾ അവർ ഈ തിങ്കളാഴ്ച ആയിരിക്കും അല്ലേ വരുന്നത് ആ അവരുടെ ക്ലാസ് ടീച്ചർ ആണോ മാം ഓക്കെ അപ്പം ബാക്കിയുള്ള ടീച്ചേഴ്സും ഇത് തന്നെയാണല്ലേ പറയുന്നത് ആ അങ്ങനെ ആ അപ്പം അവർക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ കൊടുക്കുന്ന വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ടോ അവർ ആ പറഞ്ഞാൽ കേൾക്കില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമാണ് അല്ലേ ഓക്കെ ക്ലാസ്സിൽ എങ്ങനെ ക്ലാസ് എടുക്കുന്ന ടൈമിൽ ആണോ വഴക്ക് ഉണ്ടാക്കുന്നത് ആണല്ലേ പഠനത്തിൽ മാർക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എക്സാമിനൊക്കെ എന്നാൽ ഓക്കെ നമുക്ക് വേണ്ട നടപടി എന്താണെന്നുവെച്ചാൽ എടുക്കാം പിന്നെ നമുക്ക് മറ്റുള്ള കുട്ടികളോട് ചോദിക്കുകയും ചെയ്യാം പേരെൻറ്സിൻറെ അടുത്ത് എന്താണെന്നുള്ളത് ചോദിച്ചുനോക്കാം ആ ഓ പിന്നെ നമുക്കൊരു സ്റ്റാഫ് മീറ്റിംഗ് കൂടി അതിനെപ്പറ്റി തീരുമാനിക്കാം ആ ഓക്കെ